ഇപ്പോൾ വലിയ പ്രതിമകൾന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വലിയൊരു പ്രതിമയും കാര്യങ്ങളൊക്ക ഉണ്ട് അപ്പം നല്ല രീതിയിലുള്ളൊരു വലിയൊരു പ്രതിമയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിന് കുറെ കഷ്ട്ടപ്പെട്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം എടുത്തായിരുന്നു അതുണ്ടാക്കാൻ വേണ്ടീട്ട് കുറെ ക്യാഷും ചിലവായിട്ടുണ്ടായിരുന്നു അപ്പം ആ നമ്മുടൊരു പ്രചോദനംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും അതായത് വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഇതുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് പിന്നെ അതിനിടക്ക് നമുക്ക് ക്യാഷില്ലാത്തുകൊണ്ട് കുറെ പെൻഡിങ് ആയി പോയായിരുന്നു അതിന് ഇപ്പോൾ കളർ ചെയ്യാനും കാര്യങ്ങൾക്കെക്കെ നമുക്ക് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഉദ്ദേശിച്ച കളറ് നമുക്ക് കിട്ടീലെങ്കിൽ പിന്നെ അടിക്കാനൊന്നും പറ്റാത്ത പറ്റില്ല അപ്പം നല്ലൊരു നമ്മളുദ്ദേശിക്കുന്നൊരു കളറാണല്ലോ കിട്ടേണ്ടത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടീട്ട് കുറെ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നേരിട്ട് കൊ നേരിട്ട് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയത് അങ്ങനെയെല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് കൊഴ് കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു